സാറെ എനിക്ക് ഇന്ന് രാത്രി നല്ല പനിയായിരുന്നു തലവേദനയുണ്ട് നന്നായിട്ട് തലവേദനയുണ്ട് ആഹ് രണ്ടു ദിവസമായി ഇന്നലെ നല്ല പനിയായിരുന്നു പനി വന്ന് ആം ആഹ് നാൽപ്പത്തെട്ട് വയസ്സ്

ഇല്ല കാണിച്ചിട്ടില്ല ഇല്ല ആ പനി വന്നിപ്പം ഒരു കഷ്ണം പാരസെറ്റാമോള് കഴിച്ചിരുന്നു

ആ തലവേദന ശരീരം നല്ല വേദനയാ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം ആ ഭക്ഷണം ആ തൊണ്ടവേദന തൊണ്ടവേദനയുണ്ട് തൊണ്ടവേദനയും ആ ചുമ ചെറുങ്ങനെ ചുമയുണ്ട് ഇല്ല അത് ചെറുങ്ങനെ ചുമയേയുളളൂ ഭക്ഷണം കഴിക്കാൻ തീരെ ആവുന്നില്ല ഛർദ്ദിക്കാൻ വരുകയാ

ഇല്ല പാരസെറ്റാമോള് മാത്രമേ കഴിച്ചിട്ടുളളൂ

കണ്ണ് ചുമപ്പ് അങ്ങനെ തോന്നിയിട്ടില്ല കണ്ണ് ചൊറി കണ്ണ് ചൊറിച്ചിലുണ്ട് കണ്ണ് ചൊറിച്ചിലുണ്ട് കണ്ണ് ചൊറിച്ചിലുണ്ട് ചുമക്കുന്നില്ല ചെറുങ്ങനേയുളളൂ ചെറുങ്ങനെയൊരു ചുമ ഷീണമുണ്ട് അതാ ഭക്ഷണം കഴിക്കാനാവുന്നില്ല അതെ അതെ ആ പനി പനിക്കുമ്പോൾ നല്ലവണ്ണം നല്ലവണ്ണം പനിച്ച് നന്നായിട്ട് വിയർത്ത് പോയി

ആ ആ അതെ

എലി പനീന്റെ ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യണോ സാറെ എലിപ്പനീന്റെ ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യണോ ഇല്ലയില്ല

ആണല്ലേ ആ എന്നാൽ ശരി സാറെ ഓക്കെ